പരിണമിച്ച് കൊണ്ടിരിക്കുന്ന ലോകത്തേക്കുറിച്ച് പറയുമ്പത്തേക്കിനും നമ്മുടെ ഇന്നത്തെ ലോകത്ത് പലവിധത്തിലുള്ള മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട് അതായത് എല്ലാ മേഖലയിലും മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട് അതായത് ആരോഗ്യ മേഖല ആണെങ്കിലും സാങ്കേതിക മേഖലയാണെങ്കിലും പഠന മേഖലയാണെങ്കിലും ഏത് മേഖലയാണെങ്കിലും മേഖലയാണെങ്കിലും നമുക്ക് പുരോഗമനമുണ്ട് എന്ന് നമുക്ക് പറയാനാകുന്നു ഓക്കെ അപ്പം അത് അതിനു മെയിൻ ആയിട്ടുള്ള എന്താണ് നേതൃത്വം വഹിക്കുന്നത് നമ്മുടെ ഓരോ ജില്ലയിലെ മേധാവികൾ ആണ് അവിടുത്തെ ഇതിൻ്റെ എല്ലാം കാരണക്കാർ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ആണെങ്കിൽ സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെൻറ് ആയിരിക്കും രാജ്യത്തിൻ്റെ വളർച്ചയാണെങ്കിൽ നമ്മുടെ രാ രാ രാജ്യം ഭരിക്കുന്ന ഗവൺമെൻറ് ആയിരിക്കും അങ്ങനെ അപ്പം എന്തു കൊണ്ടും നമ്മളിപ്പം നല്ല രീതിയിൽ മുന്നിട്ട് എന്താണ് വികസനം നേരിടുന്നു എന്ന് നമുക്ക് പറയാനാകുന്നു ഇപ്പോൾ സാങ്കേതിക ഇതിൽ തന്നെ ആണെങ്കിൽ തന്നെ ഇപ്പം എൻ്റെ ഒരു ഫോണിൻ്റെ കാര്യമാണെങ്കിൽ തന്നെ നമ്മൾ എന്തോരം നേരത്തത്തേക്കാളും നമ്മൾ കുറേ കൂടി എന്താണ് വികസിതമായിരിക്കുന്നു നമുക്ക് തന്നെ അറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ് പിന്നെ ആരോഗ്യ മേഖല ആണെങ്കിൽ തന്നെ പണ്ടൊക്കെ ക്യാൻസറിനൊന്നും മരുന്നില്ല ഇന്നൊക്കെ നമ്മൾ അങ്ങനെയൊക്കെ കണ്ടുപിടിക്കുന്നു ബ്ലഡ് ക്യാൻസറിനൊക്കെ മരുന്ന് എല്ലാത്തിനും ചികത്സാ രീതികൾ കണ്ട് പിടിക്കുന്നു ചിക്കൻ പോക്സിന് വരെ മരുന്നുകൾ ഉണ്ട് അങ്ങനെ ഒരു വാക്സിൻ കൊണ്ട് ഒരു കുത്തിവെപ്പ് കൊണ്ട് ചില വലിയ മാരകങ്ങളായ അസുഖങ്ങൾ വരെ അസുഖങ്ങൾ വരെ മാറുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് പറയാനാകും ചെറിയ ചെറിയ വിധത്തിലൂടെ വലിയ വലിയ കാര്യങ്ങൾ മാറ്റാൻ വരെ കഴിയുന്നുണ്ട് എന്ന് അതുപോലെ തന്നെ പഠന മേഖലയാണെങ്കിൽ തന്നെ ഇന്നത്തെ കാലത്ത് നമ്മൾ കൂടുതൽ പഠനത്തിന് പ്രാധാന്യം നൽകുന്നുണ്ട് എന്ന് നമുക്ക് പറയാനാകും കാരണം പണ്ടൊക്കെയെന്ന് പറയുമ്പോൾ ആൾക്കാർ പഠനത്തിന് അധികം പ്രാധാന്യം ഒന്നും നൽകിയിരുന്നില്ല അതുകൊണ്ട് തന്നെ വികസനവും കുറവായിരുന്നു ഇന്നത്തെ കാലത്ത് ഒത്തിരി ഒത്തിരി അധികം എന്താണ് പറയുക എല്ലാ ആൾക്കാരും തന്നെ പഠനത്തിന് ഒട്ടേറെ പ്രാധാന്യം നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത് ഒരു വലിയ രീതിയിലൊരു പ്രാധാന്യം നൽകുന്ന ഘടകമായി മാറുന്നുണ്ട് അതുപോലെ തന്നെ സ്വഭാവ രീതികളാണെങ്കിൽ തന്നെ നമ്മുടെ ഇന്നത്തെ ആൾക്കാരുടെയൊക്കെ ചിന്താഗതികളും സ്വഭാവ രീതികളും ഒക്കെ വേറിട്ട് നിൽക്കുന്നു ഇതൊക്കെ കാരണങ്ങളായി നമുക്ക് പറയാനാവുന്ന ഒരു കാര്യമാണ് ആൾക്കാരുടെ മാറ്റങ്ങൾ കൊണ്ട് തന്നെ വികസനവും ഉണ്ടാവുന്നു എന്ന് നമുക്ക് പറയാനാകുന്നു ഭൂമിപരമായും അതായത് എന്താണ് സാങ്കേതികപരമായും കായികപരമായും ഭൂമിയുടെ അതായത് സ്ഥലങ്ങളുടെ ഒക്കെ മാറ്റമായും എല്ലാ രീതിയിലും നമ്മൾ നേരത്തത്തെക്കാളും ലോകം മാറിയിരിക്കുന്നു എന്ന് നമുക്ക് പറയാനാവുന്നുണ്ട് അതുകൊണ്ട് തന്നെ കുറേ നല്ല വശങ്ങളുമുണ്ട് അഴുക്ക വശങ്ങളുമുണ്ട് നമ്മൾ ഉദാഹരണം പറയുമ്പോൾ ഫോണിൻ്റെ കാര്യം തന്നെ നമ്മൾ നല്ല രീതിയി ഉപയോഗിക്കാൻ പറ്റും അഴുക്ക രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും അപ്പം നല്ല രീതിയിൽ നമുക്ക് ഒത്തിരി അറിവ് ലഭിക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കാം അതൊരു അഴുക്ക രീതിയിലെന്ന് പറയുമ്പത്തേക്കിനും ഒത്തിരി ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാനാവും അതുപോലെ തന്നെ മദ്യമാണെങ്കിലും മരുന്നുകളാണെങ്കിലും എന്താണെങ്കിലും നമ്മൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും അഴുക്ക രീതിയിലും ഉപയോഗിക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ ഈ വളർച്ചകളെല്ലാം നമുക്ക് നല്ല കാര്യമാണെന്ന് പറയാൻ പറ്റുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ഒരു വിനയായി മാറുമെന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയുന്നു